വരയ്ക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വരക്കാറില്ല ചില ദിവസം ഓരോ സ്ഥലം കാണാൻ നേരത്ത് മനസ്സില് അതിങ്ങനെ പതിഞ്ഞ് കിടക്കും അപ്പോൾ അതൊന്ന് വരക്കണമെന്ന് തോന്നും ഞാ ഞാൻ വരക്കും അപ്പോൾ അമ്മയെ കാണിക്കും അച്ഛനെ അയ്യോ അപ്പോൾ അവര് കൊള്ളാം എന്ന് പറയുമ്പോൾ ഒര് മനസ്സിന് തന്നെ ഒര് സന്തോഷം അപ്പോൾ വീണ്ടും വീണ്ടും വരക്കാൻ തോന്നും അങ്ങനെ വീണ്ടും ഒര് സ്ഥലം കാണുമ്പോൾ അതും വരച്ച് കാണിക്കും കൊള്ളാം എന്ന് പറയുമ്പോഴ് മനസ്സിന് വീണ്ടും ഒര് സന്തോഷം പിന്നെ എനിക്ക് ഈ എല്ലാ ദിവസവും വരക്കാൻ പറ്റാത്തത് പഠിക്കണം പഠിക്കണം പഠിക്കേണ്ടത് കൊണ്ട് മാത്രം ഇപ്പോൾ വരേനെ ഞാൻ ഒര് തൊഴിലായിട്ടൊന്നും കാണുന്നില്ല ജസ്റ്റ് ഒരു റിലാക്സേഷനുവേണ്ടി വരക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ പ പഠി പഠിയ്ക്ക് പഠിയ്ക്കുന്ന കൂട്ടത്തിൽ ജസ്റ്റ് എന്റെ ഒര് സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് വരയ്ക്കുന്നത് പിന്നെ ആ അത്രയും ഉള്ളൂ